ഹലോ ഞാൻ മാളവിക ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണു കേട്ടോ മുരിക്കാശ്ശേരിയിൽ വാർഡ് നമ്പർ രണ്ടിൽ താമസിക്കുന്ന ആളാണ് വീട്ടു നമ്പർ നാനൂറ്റി പതിനെട്ട് ആണ് അപ്പം ഞാൻ വിളിച്ചതുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ലാൻഡ്ലൈൻ ബില്ല് അടച്ചായിരുന്നു പക്ഷെ ഇതു വരെ അത് കിട്ടിയെന്നു പറഞ്ഞിട്ടൊരു സ്ഥിതീകരണ ഈമെയിൽ ലഭിച്ചിട്ടില്ല അതെന്തു കൊണ്ടാണെന്ന് ഒന്ന് പറയുമായിരുന്നെങ്കിൽ വലിയ എളുപ്പമുണ്ടായിരുന്നത് ഞാൻ കുറേ തവണ ബന്ധപ്പെട്ടായിരുന്നു നിങ്ങളുടെ ഇതുമായിട്ട് ഇപ്പം ലാൻഡ് ലൈൻ ബില്ല് കേട്ട് വരുന്നെങ്കിൽ ഞങ്ങൾക്ക് അടച്ചുവെന്നുള്ളതിന് ഒരു തെളിവു ആകുമായിരുന്നു അത് കയ്യിലുണ്ടെന്നു പറയുകയും ചെയ്യാമായിരുന്നു സോ അത് അടച്ചിരുന്നു നിങ്ങളെന്തു കൊണ്ടത് ഈമെയിൽ ആയിട്ട് സ്ഥിതീകരണ ബില്ലൊന്ന് തരുമായിരുന്നെങ്കിൽ ഉപകാരമുണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ വീട്ടിലും വെക്കാമായിരുന്നു അപ്പം ഇത്രയും നാളായി രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞ് അടച്ചിട്ട് ഇതു വരെ ഈമെയിൽ വരാത്തതു കൊണ്ട് ആണിപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജയക്കുന്നേ അപ്പം അതിൻ്റെ ഈമെയിലായിട്ടുള്ള ഒരു ബില്ല് തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പം സോ അതെന്നാൽ കിട്ടിയിരുന്നതിൽ ഉപകാരമായിരുന്നു അല്ല ഇത്രയായിട്ടെന്താ താമസിക്കുന്നത് രണ്ട് മൂന്നു ആഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ ഇതടച്ചിട്ട് അപ്പം സാധാരണ ഗതിയിലതടക്കുന്നതേ പിറ്റേ ദിവസം ഈമെയിലിലേക്ക് ബില്ല് വരുന്നതാണ് ഞാൻ ഓഫീസിൽ വന്നിരുന്നപ്പം അവിടെ ആളുണ്ടായിരുന്നില്ല ഓഫീസ് സാറിനെ കാണാത്തതു കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അപ്പം ഞാൻ അവിടുത്തെ മറ്റ് സ്റ്റാഫുമായിട്ട് ചോദിച്ചപ്പോൾ സാർ വരണം സാറാണ് ഈമെയിൽ സെൻഡ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം തിരിച്ചെനിക്കന്ന് ഈമെയിലിലായിട്ട് ഒന്ന് മറുപടി തരുമായിരുന്നെങ്കിൽ ബില്ല് കിട്ടിയോ ഇല്ലയോ എന്തെങ്കിലും ബ്ലോക്കായിട്ടുണ്ടോ സോ ഞങ്ങൾ അടച്ചതാണ് എന്തായാലും എവിടെയും ബ്ലോക്കാകാൻ വഴിയില്ല കാരണം ഇത്രയും നാൾ അടച്ചു കൊണ്ടിരുന്നതാണ് അതു പോലെ തന്നെ ഇപ്പോഴും അടച്ചതാണ് അപ്പം കിട്ടുന്നതാണല്ലോ കിട്ടിയതാണെങ്കിൽ അതിൻ്റെ ആ ബില്ലൊന്ന് തരികയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അടച്ചതിൻ്റെ ബില്ല് കയ്യിൽ വെക്കുമായിരുന്നത് ഞങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരുന്നു അപ്പം അതൊന്നു പറയുമായിരുന്നെങ്കിൽ അതൊരുപകാരമായിരുന്നു അപ്പം അതെന്നു പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു അപ്പം ഇതിന് ഈ മെസ്സേജിനൊന്നു തിരിച്ച് റിപ്ലേ ചെയ്തേക്കാമോ അതോ ഇനി ഞാൻ ഓഫീസിൽ വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാലും മതി ഓഫീസിൽ വരുന്നതിന് ബുദ്ധിമുട്ടില്ല ഓക്കെ താങ്ക് യൂ